ഹലോ ഗുഡ് മോണിങ് സാർ നിങ്ങൾ സോഷ്യൽ വർക്ക് എൻ ജി യോയിൽ നിന്നുള്ള ആളല്ലേ ആ ഞാൻ ആലപ്പുഴ ജില്ലന്നാണ് വിളിക്കുന്നത് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു ശകലം വെള്ളപ്പൊക്കത്തിൻ്റെ സാഹചര്യങ്ങളക്കെ ഉണ്ട് അപ്പം നിങ്ങളുടെ എൻ ജി യൊ കേരളത്തിലെ എന്ത് സോഷ്യൽ വർക്കാണ് നിങ്ങടവടുന്നവൈലബിളായിട്ടുള്ളത് ഞങ്ങളെപ്പോലുള്ള ഈ വെള്ളപ്പൊക്കവൊക്കെ ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് വെള്ളപ്പൊക്കവായിട്ട് ബന്ധപ്പെട്ടോണ്ട് അതിന് അതിനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന സാങ്ക്രമിക രോഗങ്ങൾ അങ്ങനുള്ള പല പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നൊരു ജില്ലയാണാലപ്പുഴ ജില്ലാന്ന് പറയുന്നത് ഇപ്പം അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതേ കുറിച്ചൊന്ന് അറിയാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ടായിരുന്നു അ ഉവ്വുവ്വ് അ ഉവ്വവ്വ്

ആ ഉവ്വവ്വ് ഓക്കെ ഓക്കെ

ഓക്കെ ആ അതുപോലെ നമ്മൾ ഈ ഹെൽത്ത് സെൻ്ററുകളക്കെ ആയിട്ടുള്ള കാര്യങ്ങളക്കെ എന്തെങ്കിലും നടക്കുന്നുണ്ടൊ ഓക്കെ സാറേ വരുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രതീക്ഷക്കൊത്ത് വേഗം നിങ്ങളുവായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് താങ്ക് യൂ വെരി മച്ച്